ഹലോ ആ നമസ്കാരം ഓക്കെ അതെയതെയതെ ഓക്കെ അപ്പം സാറിന് നിലവിൽ ആധാർ എടുത്തിട്ടുണ്ടോ ആധാറുണ്ടോ നിലവിൽ ആ അപ്പം നമ്മൾക്ക് ആധാർന്ന് പറഞ്ഞ ഒരു വാലീഡ് ഐഡൻറ്റിറ്റിയാണ് അപ്പം നമ്മൾ നമ്മുടെ പാൻ കാഡ് റേഷൻ കാഡ് ബെങ്ക് അക്കൗണ്ട് പിന്നെ നമ്മുടെ മൊബൈൽ സിം കാഡ് ഇത് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ആധാറുവായിട്ട് ലിങ്ക് ചെയ്ത ഇത് ലിങ്ക് ചെയ്തിരിക്കണം അപ്പം ലിങ്ക് ചെയ്യാനായിട്ട് സാറിന് തന്നെയാണേലും ഒരു മൊബൈൽല് നമുക്കൊരാപ്പുണ്ട് ആ ആപ്പ് എടുത്തു വെച്ചിട്ട് സ്വന്തമായിട്ട് ലിങ്ക് ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയയിലോ സേവാ കേന്ദ്രത്തിൽ പോയാൽ നമുക്കത് ലിങ്ക് ചെയ്ത് എടുക്കുന്നതാണ് ലിങ്ക് ചെയ്ത് തരും അവർ ബന്ധിപ്പിച്ചില്ലായെങ്കിൽ നാളെ ലേറ്റർ സ്റ്റേജിലത് ബുദ്ധിമുട്ടുണ്ടാകും ആധാറുവായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലാത്ത പാൻ കാർഡ് ക്യാൻസലായി പോകും അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ക്യാൻസലായിപ്പോകും പിന്നെ സിം കാഡ് ഇൻ വാലിഡാകും സാറിന് റിമൈൻഡർ റിമൈൻഡർ വരുന്നുണ്ടായിരിക്കും ഇൻ കേസ് നമ്മൾ സിം കാഡ് ആധാറുവായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മൊബൈൽല് സർവീസ് പ്രൊവൈഡറുടെ ആ ആ സിം കാഡ് ആധാർ സിം കാഡ് ബെങ്ക് അക്കൗണ്ട് പാൻ കാഡ് റേഷൻ കാഡ് ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം

എന്താണ് സാറേ പ്രൊസീജിയറ് നമുക്ക് നമ്മുടെ മൊബൈൽ ത്രൂ മൊബൈൽ വഴി നമുക്ക് സ്വന്തമായി ചെയ്യാം അതല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സേവാ കേന്ദ്രത്തിലോ പോയിക്കഴിഞ്ഞാൽ നമ്മളാധാറുമായിട്ട് ഇൻഡിവിജ്വൽ പോകണം നമുക്ക് വേറെ ഒരാളുടെ ഇപ്പോൾ നമ്മളുടെ അവിടെ എന്നാ ബയോമെട്രിക് തമ്പ് ഇംപ്രഷനൊക്കെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ തന്നെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സേവാ കേന്ദ്രത്തിലോ പോയാൽ നമുക്കത് ലിങ്ക് ചെയ്ത തരുമവർ ഒരു മിനിമം എമൗണ്ട് അവരതിന് പേ ചെയ്യും ഒരു പേ ചെയ്യും അതായത് അവർ ഇത് എന്താ പറയാൻ വന്നത് ഇത് ക്ലെയിം ചെയ്യും പത്ത് രൂപയോ മറ്റോ അപ്പമത് ചെന്നാലവർ ലിങ്ക് ചെയ്ത തരും ഓക്കെ ഓക്കെ താങ്ക് യൂ ആ